ഇപ്പം ഇന്ത്യയിലെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും എന്താ പറയുക രാവിലെ ഒക്കെ ആണെങ്കിൽ ഞങ്ങള് സാധാരണ എന്തെങ്കിലും ഇഡലീ ദോശ ആ പിന്നേ എന്താ പറയുക പുട്ട് കടല അങ്ങനത്തെ സാധനങ്ങള് ഒക്കെയാണ് രാവിലെ പതിവ് അപ്പം ഉണ്ടാക്കുക അപ്പവും കടലയും പുട്ടും മുട്ടയും അങ്ങനെ ഒക്കെ ഉള്ള ഓരോ ഫുഡുകളാണ് രാവിലെ പതിവ് പിന്നേ ഉച്ചയ്ക്കൊക്കെ ആണെങ്കില് ചോറൊക്കെ ആണ് സാധാരണ എല്ലാവരും കഴിക്കാറ് അതായത് ചോറും കറിയും അതായത് സദ്യ രീതിയില് ചോറ് ചോറില് കറിയായിട്ട് ഇപ്പോൾ സമ്പാറുണ്ടാകും ചിലപ്പോൾ മോര് കറി അങ്ങനെ ഉള്ള ഉഫ് അതൊക്കെയാണ് ഉച്ചയ്ക്ക് എല്ലാവരും കഴിക്കുന്നത് രാത്രികളിൽ ഈ കൂടുതലും ഇപ്പോൾ എന്താ പറയുക ഈ ഡേറ്റ് ഒക്കെ നോക്കുന്നവരാണേൽ പിന്നെ എന്താ പറയുക ഫുഡിനോടൊക്കെ ഈ ഷുഗർ കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആയത്കൊണ്ട് തന്നേ കൂടുതൽ ആൾകാര് ചപ്പാത്തി അങ്ങനെ ഉള്ള ഒക്കെയാണ് കഴിക്കുന്നത് എന്നാലും കൂടുതൽ ആൾകാര് ഇന്നും ചോറ് കഴിക്കുന്നവരാണ് കൂടുതലും പതിവായിട്ട് നമ്മള് കണ്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഒക്കെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ സാധാരണ ഫുഡിൻ്റെ കാര്യം നടന്ന് വന്നിരിക്കുന്ന പിന്നെ മസാലകൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അവര് അവരുടെ നാട്ടില് കിട്ടുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അതായത് ഇപ്പോൾ സാമ്പാർ പൊടി ഉണ്ടാവും ചിക്കൻ മസാലാ അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പോൾ ഓൾറെഡീ ട്രൈ എല്ലായിടത്തും നിന്നും വാങ്ങാൻ കിട്ടുന്നുണ്ട് തന്നേ അവര് അവിടുന്ന് വാങ്ങി ഇതാക്കുകയാണ് ചെയ്യാറ് മേടിച്ച് കറി ഒക്കെ ഉണ്ടാക്കുകയാണ് സാധാരണ പതിവ്